ലോക്ക്ഡൗണിലാളുകൾ കൂടുതൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടോ അത് പല തീച്ചയായിട്ടും ഉണ്ട് കാരണം ഒരുപാട് അധികം മാറ്റങ്ങൾ വരുത്തിയ ഒരു സമയമാണ് നമ്മുടെ ലോകം എമ്പാടും പടർന്ന് പരത്തിയ കോവിഡെന്ന മഹാമാരിയിലുണ്ടായ ലോക്ക്ഡൗൺ കാലഘട്ടം ലോക്ക്ഡൗൺ കാലഘട്ടത്തില് ഏകദേശം എനിക്ക് തോന്നണു എല്ലാവരും തന്നെ ഒരു രെണ്ട് മാസത്തോളം മൂന്ന് മാസത്തോളം വീട്ടിൻ്റെ ഉള്ളി തന്നെയാർന്നു അതുമൂലം കൊറേ പേർക്ക് ഡിപ്രഷൻ അതുപോലുള്ള മാനസികപരമായിട്ടും ഒള്ള ബുദ്ധിമുട്ടുകളൊണ്ടായിട്ടൊണ്ട് കാരണം സൊസൈറ്റിയായിട്ടൊരു ബന്ധമില്ലാതെ നടന്നതിൻ്റെ ഒരു ബാഗമായിട്ടാണ് അതേൽക്കുന്നത് അത് കൂടുതൽ സ്പർശിച്ചതല്ലെങ്കിൽ കൂടുതൽ കൊണ്ടത് നമ്മുടെ വരുന്ന തലമുറയായിട്ടുള്ള കുട്ടികളിലാണ് കാരണം ഇപ്പോൾ അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ ഒക്കെ ചെയ്തോണ്ടിരിക്കുക എന്നുള്ളത് ഒരു പത്താം ക്ലാസ്സ് അല്ലെ പത്താം ക്ലാസ്സ് വിഭ്യാസമാണ് പത്താം ക്ലാസിൻ്റെ സമയത്തൊക്കെ ലോക്ക്ഡൗൺ വീട്ടിൽ തന്നെ ആവുമ്പോ വീട്ടില് ഫോൺ യൂസെയ്യില്ല അല്ലെങ്കിൽ നമ്മൾ പൊറത്ത് പോയി കളിക്ക്ക ഫുട്ബോള് കളിക്കാ പൊറത്ത് പോവാ കറങ്ങി നടക്കാ അതൊക്കെയാർന്നു നമ്മുടെ മെയിൻ ഹോബീസ് ഫോൺ എന്നൊള്ള സംഭവത്തെപ്പറ്റി നമ്മളാരും ചിന്തിക്കുന്നു പോലും ഉണ്ടാർന്നില്ല അത് പിന്നെ കൊറോണ ആയപ്പത്തേക്കും വീട്ടിലിരിക്കാൻ തൊടങ്ങിയപ്പത്തേക്കും വേറൊരു മാർഗ്ഗോം ഇല്ല കളിക്കാൻ വേറൊന്നും ഇല്ല വേറെങ്ങടും പോവാൻ പറ്റത്തില്ല വീട്ടിൻറ്റകത്തന്നെ ഇരിക്കാൻ പറ്റത്തൊള്ളു അങ്ങനെ ഒള്ള കാര്യങ്ങളൊക്കെ വന്നപ്പത്തേക്കും എല്ലാവരും ഇതിൻറ്റകത്ത് തന്നെ പെട്ടോയി ഈ പറയുന്ന ലോക്ക്ഡൗൺൻ്റെ ഒരിതില് എല്ലാവരും ഫോൺ അല്ലെങ്കി ടീവിസ് അല്ലെങ്കി ലാപ്ടോപ്പുകൾ കൂടുതലായിട്ടും യൂസെയ്യാൻ തൊടങ്ങി അപ്പൊ അതിലേക്ക് ഇരുന്ന് ഇരുന്ന് ഇരുന്ന് അത് നമ്മളിൽ തന്നെ ഒരുപാടധികം മാറ്റങ്ങൾ വന്നിട്ടൊണ്ട് കാരണം ഇപ്പോ ഒരു പത്തൊമ്പത് ഇരുവത് ഇരുവത്തഞ്ച് വയസ്സിനുള്ളിലൊള്ള എല്ലാവർക്കും തന്നെ ഫോൺ യൂസേജ് വളരെയധികമാണ് എല്ലാവരുടെയും സ്ക്രീൻ ടൈം ഒരു മൂന്ന് നാല് മണിക്കൂർ കൊറഞ്ഞ ജോലി ചെയ്യുന്നവർടെയാണെ പോലും ഒരു മൂന്ന് മണിക്കൂറ് അല്ലെങ്കി മൂന്നര മണിക്കൂറ് സ്ക്രീൻ ടൈമൊണ്ട് അല്ലാത്ത ഇപ്പോ വിദ്യാഭ്യാസല്ല ഡിഗ്രി പഠനത്തിൽ നിൽക്കുന്നവരാണെങ്കി ഏകദേശം ഒരു ഒരു ഏഴ് അല്ലങ്കിലാറ് ഏഴ് തൊട്ട് വരെ ഒമ്പത് വരെ പോകുന്ന സ്ക്രീൻ ടൈമാണ് ഓരോരുത്തർക്ക് ഉള്ളത് അത്രെ ഒണ്ട് അതേ സമയം കുട്ടികളിലോട്ട് വരുമ്പത്തേക്കും അതായത് ഇപ്പോ ഈ ദി ആൽഫ എന്ന് പറയുന്ന രെണ്ടായിരത്തി എത്രേന് ശേഷമാണത് ആൽഫാന്ന് പറയുന്ന ജെനറേഷനിലേക്ക് വരുമ്പത്തേക്കും ഇവർ ഫോണിലേക്കടിക്റ്റഡാണ് കാരണം ഇവര് ജെനിച്ച് വീണത് അല്ലെങ്കി ഇവര് വളർന്ന് വരുന്ന പ്രായത്തിൽ കളിച്ച് ഇല്ലെങ്കി ആ ഒരു ടൈമിലൊരു അഞ്ചും ആറും വയസ്സുള്ള സമയത്ത് അല്ലങ്കി നാലും അഞ്ചും ബുദ്ധി ഒറക്കുന്ന സമയത്ത് കളികൾ കളിച്ച് അതുപോലെതന്നെ ചുറ്റി നടന്ന് അങ്ങനെ ചെയ്യേണ്ടെ ന്ന സാമ്പത്തി അല്ല സൊസൈറ്റിയായിട്ട് സമ്പർക്കം പുലർത്തി നടക്കണ്ട സമയത്ത് ഇവർ വീടിൻറ്റകത്ത് കുത്തിയിരുന്ന് ഫോൺ യൂസേജിലാണ് അപ്പ അങ്ങനെയൊരു സാഹചര്യം വരുമ്പത്തേക്കും ഇതിൻ്റകത്ത് അവർക്ക് കൂടുതലായിട്ടൊള്ള പ്രശ്നങ്ങള് വരുന്നെന്ന് വെച്ചഴിഞ്ഞാൽ ഇവര് ഫോണിലേറ്റഡി അഡിക്ക്റ്റഡായിപ്പോയി അവർ ഫോൺ യൂസേജ് വളരെയധികം കൂട്ടുകയും ഫോൺ യൂസേജ് കാരണം അവരിൽ പല മാനസികമായിട്ടൊള്ള പ്രശ്നങ്ങളും അതുപോലെ സോഷ്യലി ഇൻട്രാ സോഷ്യൽ ഇൻട്രാക്ഷനെന്ന് പറയുന്ന ഒരു സംഭവം അതിൽ നിന്നും വിട്ടൊഴിഞ്ഞ് തൊടങ്ങി

അങ്ങനൊരു കാരണത്തെ ഇപ്പോ നമ്മളൊര് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലൊള്ള ആൾക്കാരിതന്നെ ഈ വരുന്ന ഫോൺ യൂസേജധികമാണങ്കിലും ഈ വരുന്ന തലമുറ അതായത് ഇപ്പൊ ഒരു പത്തും പന്ത്രണ്ടും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളില് താഴെ അതായത് ആറും ഏഴും വയസ്സുള്ള കുട്ടികള് വരെ ഇപ്പോ അല്ല പയങ്കരമായിട്ട് ഫോൺ യൂസേജിലും ഫോണിനും അഡിക്റ്റടാണ് ഫോണില് ഫോണില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഫോണില്ലാണ്ട് ഉണ്ണാൻ പറ്റില്ല ഫോണില്ലാണ്ട് കറങ്ങി നടക്കാൻ പറ്റില്ല എന്നൊള്ള അവസ്ഥയിലാണ് അഞ്ചും ആറും വയസ്സുള്ള പിള്ളേർക്കിപ്പ ഫോൺ മേടിച്ചു കൊടുക്കണ്ട അവസ്ഥയാണ് നമ്മുടേക്കെ പ്രായത്തില് ഏകദേശം ഒരു പത്ത് ഇരുപത് പതിനാറ് പതിനേഴ് അതായത് പ്ലസ്ടു കഴിഞ്ഞപ്പളാണ് എനിക്ക് ഫോൺ കിട്ടി തൊടങ്ങിയത് ഡിഗ്രീയിലേക്ക് ഡിഗ്രി ഉപരി പഠനത്തിന് കേറാൻ തൊടങ്ങിയപ്പാണ് ഫോണക്കെ മേടിച്ച് കിട്ടിയത് ആ ഒരു ടൈമില് നടക്കുന്ന സമയത്തിപ്പോ അഞ്ചും ആറും വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഫോൺ യൂസേജിൻ്റെ അവസ്ഥ വന്നിരിക്കാണ് കാരണം വിദ്യാഭ്യാസ മേഖലയാണങ്കി പോലും അതിനു ശേഷം ഓൺലൈനായിട്ടുള്ള പ്രിൻറ്റൗട്സ് കൊടുക്കാൻ തൊടങ്ങി ഇപ്പത്തെ സ്കൂളുകളിലൊന്നും നോട്ടെഴുതിക്കുന്ന പരിപാടി ഒന്നൂല്ല എല്ലാടത്തുഇങ്ങനെ കൊറേക്കെ പ്രിൻ്റ് ഔട്ട്സ് കൊടുക്കുക അതുപോലന്നെ നോട്ട്സെല്ലാം ഗ്രൂപ്പിലോട്ട് ഷെയറേയ്യാം അപ്പളും ഫോൺ യൂസേജിനോക്ക് കൂടുതൽ ഈ ഫോൺ യൂസേജിനാളവ് വളരെ പരിമിതമാക്കാൻ വേണ്ടി സ്കൂളുകള് തന്നെ അതിന് ഇനിഷിയേറ്റീവ്സെടുക്കണം കാരണം ഇപ്പ എല്ലാ എന്ത് കാര്യോണ്ടേലും തലേന്ന് രാത്രി പിന്നെ വാട്സ്അപ്പ് ഗ്രൂപ്പി കൂടെയാണ് കുട്ടികളെ അറിയിക്കുന്നത് ഞങ്ങടേക്ക പ്രായത്തില് വൈകിട്ടൊരു നാല് മണിയാകുമ്പഴ്ത്തേക്കും എന്തേലു ഒക്കെ കാണിച്ച് അറിഞ്ഞിരിക്കും പറഞ്ഞിരിക്കും ഇങ്ങനെയാണ് സ്കീം ഇങ്ങനെയാണ് പരിപാടി നാളെ ഇങ്ങനെ പരിപാടിയാണ് എന്നത് ഇപ്പൊ തലേന്ന് രാത്രി നമ്മളാണ് എല്ലാരും എല്ലാം അറിയിക്കുന്നത് അങ്ങനെയൊരു സംവിധാനം മാറ്റിയൊരു പഴയൊരു സംവിധാനത്തിലേക്ക് തന്നെ എത്തുകയാണെങ്കിൽ ഈ വരുന്ന കുട്ടികളിലേക്ക് ഫോൺ യൂസേജിൻ്റെ അളവുകൾ വളരെ ഗണമായിട്ട് കൊറക്കാൻ പറ്റും അതുപോല തന്നെ ഈ ലോക്ക്ഡൗൺൻ്റെ സമയത്ത് വന്നൊരു കാര്യവാണ് ഈ വർക്ക് അറ്റ്ഹോം വർക്ക് അറ്റ് ഹോമിനാത്ത് വേറൊന്നും വേറൊന്നുല്ല അത് വീട്ടീരുന്ന് തന്നെ വർക്ക് ചെയ്യാം എന്നുള്ളൊരു സ്കീമ് വന്നേക്കണത് അതിൻ്റാതാണ് അപ്പോ അങ്ങനെയൊരു സ്കീം അയിൻ്റാത്ത് വന്ന കാരണം ഒരുപാടധികം ആൾക്കാര് വർക്കറ്റ് ഹോമിലൂടെ ഒരുപാടധികം പൈസകൾ നേടുന്നുണ്ട് പക്ഷേ എല്ലാം വർക്കറ്റ് ഹോമിലൂടെ ഞാൻ പറയുന്നു അത് വളരെ നല്ലൊരു കാര്യാണ് അതിനോട് ഞാൻ പോസിറ്റീവ്ലി ആണ് എൻഗേജെയ്യുന്നതും കാരണം അത് മൂലം വീട്ടീരുന്നു കൊണ്ട് തന്നെ വീട്ടിലുള്ള അതായത് ഫാമിലി പരമായിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊണ്ട് തന്നെ കൊറേ പേർക്ക് ഈ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും അതുപോലന്നെ കമ്പനീസിൻ്റെ ഉത്തരവാദിത്വ കാര്യങ്ങൾ നടക്കും അതുപോലന്നെ ഇവരുടെ കാര്യങ്ങളും നടക്കും ചെലവർക്കിപ്പോ വർക്കൊണ്ട് അതുകൊണ്ട് വേറെ സ്ഥലത്ത് പോയി നിക്കാ അവിടെ പോയി നിക്കാ ഇവിടെ പോയി നിക്കാ വർക്കൊള്ളോണ്ട് നാട്ടിപ്പോയി നിക്കാം ആഴ്ച്ചേലൊര് പ്രാവശ്യം അല്ലെ രെണ്ടഴ്ച കുടുമ്പലിളൊക്കെ വരുന്ന ആൾക്കാരണ്ട് അപ്പ അതക്ക ഒഴിവാക്കാൻ നമുക്കി വർക്ക് അറ്റ് ഹോമിലൂടെ പറ്റും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തില് ഈ മൊബൈൽ ഫോണുകൾടെ ഉപയോഗം വളരെ അധികം കൊറക്കുകയായിരുന്നെങ്കിൽ നമ്മുടെ ഇനി വരുന്ന തലമുറക്ക് ഫോൺ അഡിക്റ്റീവല്ലാത്തെ അല്ലെങ്കി ഒരു നല്ലൊരു സോഷ്യൽ ഇൻറ്ററാക്റ്റാക്കുന്ന പിള്ളേരിപ്പ നമ്മളെടേല് കൊറവാണ് അതൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും